ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലുപയോഗിക്കുന്ന ആപ്പെന്ന് പറയുന്നത് വാട്സപ്പ് ഫെയ്സ് ബുക്ക് ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം ഇതൊക്കെയാണ് നമ്മള് കൂടുതലായിട്ടുപയോഗിക്കുന്ന യു ട്യൂബ് ഇതുപോലെയുള്ള കാര്യങ്ങള് ഇതില് നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒരുപാടുണ്ട് അതുപോലെ എൻ്റർടൈമെൻ്റിനുപയോഗിക്കുന്ന ആപ്പ് ആപ്പുകളും നമ്മള് ഉപയോഗിക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ ഉള്ളതാണ് അപ്പോള് ഈ സ്മാർട്ട് ഫോണില് തന്നെ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ഫോണിനു മാത്രമല്ല എന്ത് കാര്യമെടുത്താലും അതിനു ഗുണങ്ങളും ദോഷവുമുണ്ട് ഇപ്പോള് സ്മാർട്ട് ഫോണാണെങ്കില് നമുക്ക് നല്ല രീതിലുപയോഗിക്കാണെങ്കില് അത് നല്ല രീതി തന്നെ നമുക്കുപയോഗിക്കാനായിട്ട് പറ്റും അത് മോശമായിട്ടുപയോഗിക്കണമെന്നുണ്ടെങ്കിലത് മോശമായിട്ടും ഉപയോഗിക്കാം ഇപ്പോള് ഇന്നന്നെ നമുക്കൊരുപാട് കേസും കാര്യങ്ങളുമൊക്കെ ഇത് വഴി വരുന്നുണ്ട് ഫേയ്ക്ക് ഫെക്കൈഡി അതുപോലെ പലതരം റൊട്ടേഷൻഷിപ്പ്സ് ഇതിലൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങള് വന്നിട്ട് അതിൻ്റെ അതിൻ്റേതായ ഇഷ്യൂസ് ഇഷ്യൂസുണ്ട് അപ്പോള് അത് ഒരു എന്താ അതൊരു ദോഷം എന്നു തന്നെ പറയാം ഇതിൻ്റെ ഇതീ തന്നെ ഗുണവശങ്ങളെന്നു പറഞ്ഞാല് നമുക്ക് തിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നത് നമുക്ക് ലോകത്തെവിടെയുള്ള കാര്യങ്ങള് നമുക്ക് സോഷ്യൽ മീഡിയ വഴി അറിയാനായിട്ട് പറ്റും നമുക്ക് എല്ലാ കര്യങ്ങളും പെട്ടെന്നുതന്നെ അറിയാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് ഡേറ്റ സേവ്യ്ത് വയ്ക്കാനായിട്ട് ഒത്തിരി കാലത്തേന് വേണ്ടി ഡേറ്റ നമുക്ക് സേവ്യ്ത് വെക്കാനായിട്ടും സഹായിക്കും ഇപ്പോള് നമ്മള് റിട്ടേൺ ടെക്സ്റ്റ് ഒക്കെയാണങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നതിനൊരു ലിമിറ്റുണ്ട് ചീത്തയായി പോകാം അതുപോലെ കാര്യങ്ങള് കണ്ടു പിടിക്കാൻ ലിമിറ്റേഷൻ ലിമിറ്റ് അതിനൊക്കൊരു ലിമിറ്റുണ്ട് പക്ഷേ ഇതിലെന്ന് പറയുമ്പഴ്ത്തേനും നമുക്ക് ഏത് കാര്യമാണോ വേണ്ടത് നമുക്കെപ്പോഴാണോ വേണ്ടത് ആ സമയത്തിനുള്ളില് നമ്മുടെ കൈകളിലെത്താനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും അതുപോലെ എത്രനാളത്തേനും വേണേ നമുക്കിത് സേവ്യ്ത് വയ്ക്കാം കളക്ട്യ്ത് വയ്ക്കാം ഇൻഫോർമേഷൻ വേണം എപ്പോള് വേണോ അപ്പോള് നമുക്ക് ഇതീന്നെടുക്കാനായിട്ട് പറ്റും അത് ഇതിൻറ്റൊരു ഗുണമാണ് പിന്നെ ആപ്പെന്ന് പറയുമ്പഴ്ത്തേനും വാട്സപ്പ് പോലുള്ള ആപ്പ് നമുക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആപ്പുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമായിരുന്നു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എന്താ സൂം സൂം അതുപോലെ ഗൂഗിൾ മീറ്റ് ഇതൊക്കെ കൊറോണ കാലഘട്ടത്തിൽ നമ്മ ഇവ ഇവയിലൂടെയാണ് നമുക്കെഡ്യൂക്കേഷനൊക്ക നടന്നുകൊണ്ടിരുന്നത് അതുപോലെ ഗൂഗിള് നമ്മള്ക്കുപയോഗിക്കാം ഗൂഗിള് നമുക്കൊരുപാട് പഠിക്കാനുള്ള കാര്യങ്ങള് നമുക്ക് കിട്ടാറുണ്ട് ഒരുപാട് ഇൻഫൊർമേഷൻസ് നമുക്ക് സേവ്യ്തെടുക്കാന് പറ്റും അതുപോലെ തന്നെ ഇതിലെ ഇത് ചെയ്യുന്നതോടൊപ്പം അതില് തെറ്റായ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കില് അതും ഇവയിലാണുള്ളത് അത് അതൊരു അതും ഇതിലുണ്ട് നമുക്ക് വേണമെന്നുള്ളത് മാത്രം നമുക്കെടുക്കാം ഏതൊരു കാര്യമെടുത്താലും അതില് തെറ്റുമുണ്ട് ശരിയുമുണ്ട് അതില് നമ്മള് ശരിയെ മാത്രം ചൂസ്യ്താല് മതി എന്തായാലും നമുക്കതിനെ ഇപ്പോള് ഈ സോഷ്യൽ മീഡിയാസ് നമുക്ക് മുഴുവനായിട്ട് എന്ത്യാന് മാറ്റാനായിട്ടു പറ്റത്തില്ല നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല ഇനിയും അതിൻ്റെ വിപുലീകരിച്ച രൂപങ്ങളായിരിക്കും ഇനി ഇറങ്ങാൻ പോകുന്നത് ഒരിക്കലും സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ലപ്പോള് കൂടുതല് ഇത് വരുമ്പഴ്ത്തേന് നമ്മള് യൂസ് നമ്മളുപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാ നോക്കാ അതേ നമ്മളെ കൊണ്ട് സാധിക്കുവുള്ളൂ നമുക്ക് എങ്ങനെ നല്ല രീതിയിലുപയോഗിക്കാം ആ ഒരു രീതിയാണ് നമ്മള് സ്വീകരിക്കുന്നത് അപ്പോള് ഈ ആപ്പ് സ്മാർട്ട് ഫോണായാലും സ്മാർട്ട് ഫോണില്ലാതെ നമുക്ക് ഇന്നു പറ്റത്തില്ല ഇന്നെല്ലാ കാര്യങ്ങളും സ്മാ നമ്മള് ഫുഡ് മുതല് ഫുഡ് കഴിക്കുന്നതു മുതല് നമ്മള് ഡ്രസ്സായാലും എന്തു കാര്യമായാലും എന്ത് സാ ഇപ്പോള് എന്തെങ്കിലും സാധനങ്ങള് വാങ്ങിക്കുന്നായാലും എല്ലാം നമ്മള് എല്ലാത്തിലും നമ്മള് സമീപിക്കുന്നത് സോഷ്യൽ മീഡിയേ തന്നെയാണ് അതുകൊണ്ട് നമുക്കൊരിക്കലും ഇത് വേണ്ടാന്ന് വയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പോള് നല്ല രീതിയില് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാ അതാണ് നമ്മള്ക്ക് ചെയ്യാൻ പറ്റുന്നെ കാര്യം